ഇവിടെ വയനാട് ജില്ലയിൽ പ്രധാനപ്പെട്ട പ്രാദേശിക മാധ്യമങ്ങൾ ഏതാന്നൊക്കെ വെച്ചിട്ടുണ്ടങ്കിൽ പിന്നെ വയനാട് വിഷൻ അങ്ങനെ കേരള വിഷൻ അങ്ങനത്തെ ചാനലുകളൊക്കെ ഉണ്ട് അതിന്ന് ആണ് നമ്മൾ വയനാട് വിഷനിൽ ആണ് നമ്മൾ ഇപ്പോൾ വയനാടിൽ നടക്കുന്ന അതായത് കാര്യങ്ങളൊക്കെ വയനാട് വിഷൻ വഴി ആണ് അറിയുക പിന്നെ അതുപോലെ തന്നെ റേഡിയോ മാധ്യമങ്ങൾ റേഡിയോക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ ആൾക്കാർ കേൾക്കൽ വളരെ കുറവാണ് ഇപ്പോൾ റേഡിയോയിൽ അതായത് ഇത് ആക്കുന്നത് ഭയങ്കര കുറവാണ് ഇപ്പം കൂടുതലും ടീ വി പത്രം അങ്ങനെ ഉള്ളതൊക്കെ ആണ് ഇപ്പോൾ പത്രത്തിനേക്കാളും കൂടുതൽ എല്ലാവരും ടി വി ആണ് കാണുന്നത് ഇപ്പോൾ വയനാട് വയനാടിനെക്കുറിച്ച് അറിയണോങ്കിൽ വയനാട് വിഷൻ ഉണ്ട് പിന്നെ കേരള വിഷൻ ഉണ്ട് അതിലും അറിയും പിന്നെ ബാക്കി ഫുൾ ആയിട്ട് അറിയണോങ്കിൽ നമുക്ക് ന്യൂസ് പിന്നെ ട്വൻറ്റി ഫോർ ന്യൂസ് ഉണ്ട് മനോരമ ന്യൂസ് ഉണ്ട് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട് അങ്ങനെ പല ന്യൂസുകൾ ഉണ്ട് പിന്നെ പത്രങ്ങൾ ആണെങ്കിൽ ഇപ്പം ദേശിയ അഭിമാനി മാത്രഭൂമി മലയാള മനോരമ അങ്ങനെ പല പത്രങ്ങളും ഉണ്ട് പത്രങ്ങളിലൊക്കെ വയനാട് ജില്ലേൻ്റെ ന്യൂസ് ഒക്കെ അറിയണോങ്കിൽ നമ്മൾ പത്രം ഫസ്റ്റ് പേജിൻ്റെ തൊട്ട് നമ്മൾ മറിച്ച് നോക്കിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ പല പല സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും ആണ് അതിൽ കാണുക